ഹലോ ആ ഗുഡ് മോണിംഗ് ഞാൻ വിളിക്കുന്നത് ചിക്കാഗോയിൽ നിന്നാണ് ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഒര് ഫാമിലിക്ക് അവധിക്കാലത്ത് എന്താണ് ഓർലാൻഡോയിലേക്ക് പോവാനായിട്ടൊരു പ്ലാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജസും ഡേറ്റ്സ് അവൈലബ്ലിറ്റിയൊക്കെ ഒന്നറിയാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരാഴ്ചത്തെ പ്ലാനിംഗുണ്ട് അതായത് ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്യണം സോ റിട്ടൺ ടിക്കറ്റിനെ പറ്റി ഞങ്ങക്കൊന്നറിയണം എന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തേണ്ട തീയതി എന്ന് പറയുമ്പം ജാനുവരി നൈൻത്താണ് ജാരി ജാനുവരി നൈൻ ടു ജാനുവരി സെവന്റീന്ത് വരെയാണ് ഞങ്ങള് അവിടെ ഉണ്ടാവുക അപ്പോൾ അതിനൊരു അവൈലബിലിറ്റി ഒന്ന് എക്സ്പ്ലെയ്ൻ ചെയ്യാൻ സാധിക്കുമോ